ഹലോ ഹലോ കേട്ടില്ല ക്ഷമിക്കണം ആ അതെയല്ലോ എന്തായിരുന്നു ആ ഡ്രൈവിംഗ് ലൈസെൻസ് ആ പറഞ്ഞോ എച്ചും എല്ലും എച്ചും എട്ടും അല്ലേ എല്ലോ ആ ഈ സ്ഥലം എവിടുന്നയായിരുന്നു വിളിക്കുന്നത് എവിടുന്നാ ഇത് വിളിക്കുന്നത് ആ എച്ചും എട്ടും ഒറ്റ ഇതിലെടുക്കാൻ വേണ്ടിയായിരുന്നോ

മുൻ മുന്നെ എവിടെയെങ്കിലും പോയി പഠിച്ചതാണോ ആ ഓക്കെ വീട്ടിൽ കാറ് എക്സ് യൂ വിയാണോ ഓ ബൈക്ക് ആണോ സ്കൂട്ടറാണോ വീട്ടിലുള്ളത് ആ ഓക്കെ ഇപ്പം നമുക്ക് ബൈക്കിനു സ്കൂട്ട്റിനും സെപ്പറേറ്റ് ആണ് ഇപ്പം ബൈക്ക് ആവുമ്പം അവിടെ നമ്മൾ ഗിയറുള്ള വേണോ അവിടെ ചെയ്യാൻ എട്ട് എടുക്കാൻ പിന്നെ സ്കൂട്ടറാണെങ്കിൽ അവിടെ ഗിയർലെസ് ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇപ്പോൾ ഇത് രണ്ടുംകൂടെ ഓൺലൈൻ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൂ ഇപ്പം നമ്മൾ മുഖേന ചെയ്യുമ്പോളത്തേക്ക് ഏകദേശം ഒരു ഫൈവ് തൗസൻറ്റ് ഉള്ളിൽ രണ്ടുംകൂടെ വരും പിന്നെ ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ അതിന് സൗകര്യമായിരിക്കും കാരണം ഇവിടെവന്ന് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കൈ തെമഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ നോക്കാം അറിയാം ആ അപ്പം ഇവിടെവന്ന് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടുത്തെ വണ്ടിയിൽ എടുക്കാൻ ഇവിടുത്തെ വണ്ടി തന്നെയാണ് നമ്മളവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആർ ടി ഓടെ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പം ഒരു ദിവസമെങ്കിലും ആ നിങ്ങളുടെ വണ്ടിയും കൊണ്ടാണെങ്കിലും നമുക്ക് അതിന് ജസ്റ്റ് ഇതിന് നേരത്തെ ടെസ്റ്റിന് പോവുന്നതിന് മുമ്പ് പെർമിഷ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയും കൊണ്ടാണെങ്കിലും നിങ്ങൾക്കവിടെ പോയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ വന്ന് ആ പറഞ്ഞോളൂ അപ്പം ഇവിടെ വന്ന് പഠിച്ചിട്ട് ഇവിടുന്ന് മുഖാന്തരം പോയി എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു പതിനൊന്നായിരത്തിനുള്ളിൽ ഇത് രണ്ടും ചെയ്യാൻ പറ്റും അത് ഇവിടുത്തെ ഫീസും പിന്നെ നിങ്ങളുടെ അവിടെ രജിസ്റ്ററ് ചെയ്യാനുള്ളത് ലേണേസ് ഉണ്ടായിരുന്നോ അപ്പം ലേണേസിനെടുക്കാനൊരു എക്സ്ട്രാ ഫീസുണ്ട് അപ്പം ലേണേസ് ഇങ്ങനെ പഠിക്കാൻ ജസ്റ്റ് പിന്നെ ബേസിക്ക് ആ ഡ്രൈവിംഗ് റൂളൊക്കെ അറിയാമോ ആ അതിനുള്ള ബുക്ക് അതൊക്കെ അപ്പം അപ്പം നമ്മൾ നമ്മളൊരു പാക്കേജ് പോലെ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഇവിടുന്ന് ലേണേസ് ലേണേസിന് മുമ്പുള്ളൊരു ക്ലാസുണ്ടൊരു മൂന്നുദിവസത്തെ ഒരു ക്ലാസുണ്ട് നമ്മുടെ വൺ ടു വൺ സെക്ഷന് അല്ലെങ്കിൽ ആ നമ്മൾ ബാക്കി പിള്ളേരുകൂടെ ഇവിടുന്ന് ഈ ബേസിക് നിയമങ്ങൾ സാറെ നിങ്ങൾ വണ്ടി ടെസ്റ്റിന് പോവുമ്പത്തേക്ക് ആർ ടി ഒ നിങ്ങളുടെകൂടെ ഇരുന്ന് ഈ ഒരു റോ ടെസ്റ്റ് ഉണ്ടാവും റോ ടെസ്റ്റിന് ഇതെല്ലാം ചോദിക്കുന്നതായിരിക്കും ആർ ടി ഒ നിങ്ങളുടെ കൂടെ ഇരുന്ന് അപ്പം ഒരു ബേസിക് കാര്യങ്ങളുണ്ട് അപ്പം അപ്പം അതിന് വേണ്ടിയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണേൽ നമ്മളിവിടെ ഇവിടെ വന്ന് ഇവിടുത്തെ ക്ലാസ് അറ്റൻ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെയാണെങ്കിൽ ഓക്കെ ഡയറക്റ്റ് ഡേറ്റ് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു ഒരു മാസത്തെ ഒരു പ്രൊസീജ്യറ് ആണ് ലേണേസ് എടുത്ത് കഴിഞ്ഞ് ഒരു മാസം ഒരു ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഇവിടെ ഡെയ്ലി രാവിലെ വന്ന് വണ്ടിയോട്ത്ത് കൈ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റോട്ടിലിറക്കും ആ പിന്നെ തിരക്കുള്ള റോഡ് ഓക്കെ വണ്ടി ഓടിക്കാനറിയാമെങ്കിലല്ല വണ്ടി നേരത്തെ ഓടിക്കെങ്കിൽ അറിയാമെങ്കിലും നമ്മുടെ ഇവിടെ ജസ്റ്റ് തിരക്കുള്ള റോഡ്കൾൽ കൂടെ ഒന്ന് വണ്ടി നമ്മളിവിടുത്തെ വണ്ടി യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിലും ഹാ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി എന്തായാലും വന്നേ തീരത്തുള്ളൂ പിന്നെ ലേണേസ് ഇല്ലല്ലോ അപ്പം ലേണേസ് ഇല്ലാതെ വണ്ടി എടുക്കുക എന്ന് പറയുന്നത് പോസിബ്ള് ആയിട്ട് ഒരു കാര്യം അല്ല നിയമത്തിനെതിരാണ് അപ്പം ലേണേസ് ആദ്യമേ ലേണേസ് എങ്ങനെയെങ്കിലും എടുക്കണം ലേണേസിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ് ലേണേസ് പാസ് ആയാൽ അറിയാമല്ലോ ഇരുപതിൽ പന്ത്രണ്ട് മാർക്ക് മതി ലേണേസ് കഴിഞ്ഞിട്ടായിരിക്കും അത് നമ്മളെ ക്ലാസ് തുടങ്ങുക ലേണേസ് ചെയ്യുമ്പം തന്നെ ലേണേസിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ബുക്ക് കൊണ്ടുതരാം അപ്പം ആ അത് അപ്പം എന്നത്തേക്ക് വരാൻ സാധിക്കും അപ്പം നമ്മുടെ ഫീസ് പറഞ്ഞല്ലോ അപ്പം ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു പാക്കേജ് എടുക്കുവാണേൽ ഒരു മാസത്തിനുള്ളിൽ ഓക്കെ കറക്റ്റ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിനുളളിൽ നമുക്ക് ലൈസൻസ് രണ്ടും എടുക്കാൻ പറ്റും ഒരുമിച്ച് രണ്ടും എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു വൺ ബൈ വണ്ണ് എടുക്കുന്നതാണെങ്കിൽ മുന്നോട്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം എന്നത്തേക്ക് വരാൻ സാധിക്കും ആ ശനി ഞായറായ്ച്ചകളിൽ അവധിയാണ് ബാക്കി തിങ്കൾ മുതൽ ശനി വരെ ഒമ്പത് മണി മുതൽ അല്ല എട്ട് മണി മുതൽ ആറ് മണി വരെയുണ്ട് ഓഫീസ് എന്നത്തേക്ക് വരാൻ സാധിക്കും യെസ് സർ ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാൽ ആയിക്കോട്ടെ വിളിച്ചാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓ ആ